ഇന്ത്യ എന്നു പറയുന്നത് എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു സംസ്കാരമുള്ള രാജ്യമാണ് ഈ രാജ്യത്തിന് പണ്ടുകാലത്ത് ഒരുപാട് ചരിത്രങ്ങളുമുണ്ട് ഇവിടെ നിരവധി വ്യത്യസ്ത ആളുകളെല്ലാം താമസിച്ചിരുന്നു ഇന്ത്യയിലെ ചില കലകളെന്നു പറയുന്നത് വളരെ പ്രാചീനമായ പഴക്കമുള്ളതാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി അത് നിലനിൽക്കുന്നും ഉണ്ട് ഇന്നും കലകളും കലയേയും കലാരൂപങ്ങളേയും സ്നേഹിക്കുന്ന ഒരുപാടുപേർ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഒരുപാട് പേരെന്നല്ല ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ കലകൾ ഇത്തരത്തിലുള്ള കലയെ പരമ്പരാഗത കല എന്നും വിളിക്കുന്നുണ്ട് ഇന്ത്യയിലെ പരമ്പരാഗത കലയിൽ പെയിൻ്റിങ് നൃത്തം സംഗീതം എന്നിവയെല്ലാം അടങ്ങുന്നുണ്ട് ഇന്ത്യയിലെ ഒരുതരം ചിത്രരചനയെ എനിക്ക് ഓർമ്മ വരുന്നത് മധുബാനി പെയിൻ്റിങ് എന്നു വിളിക്കുന്നു ഇത്തരത്തിലുള്ള പെയിൻ്റിംഗ് മിഥില എന്ന സ്ഥലത്തുനിന്നാണ് ഇത് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ കലയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഇതായിരുന്നു ഓർമ്മവന്നത് ഇന്ത്യയിലെ മറ്റൊരുതരം കലകളെപ്പറ്റിയും കലാരൂപങ്ങളെപ്പറ്റിയും എല്ലാം കുട്ടികൾക്കുവരെ പഠിക്കാനുള്ള കാര്യമാണ് ഇന്ത്യയിൽ ധാരാളം പരമ്പരാഗത നൃത്തങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പരമ്പരാഗത നൃത്തങ്ങൾ കുറച്ചാണ് കഥകളി മോഹിനിയാട്ടം ഇതെല്ലാം ഇന്ത്യയിലെ തനതായ കലാരൂപങ്ങളിൽപ്പെടുന്നു ഈ നൃത്തം കേരളത്തിലെ പ്രശസ്തമായ നർത്തകരും എല്ലാം ആട്ടം വച്ചു നടത്തിയിട്ടുള്ളതാണ് ഇതിലെ വർണ്ണാഭമായ വസ്ത്രങ്ങളും മേക്കപ്പും ധരിച്ചു വരുമ്പോൾ നർത്തകരെ കാണാൻ അതിമനോഹരമാണ് നിരവധി ഇന്ത്യൻ കലാകാരന്മാറിപ്പോൾ ലോകമെമ്പാടും പ്രശസ്തരാണ് അവർ പല രാജ്യങ്ങളിലും അവരുടെ സൃഷ്ടികൾ എല്ലാം കാണിച്ച് അവരുടെ കഴിവുകൾ തെളിയിച്ചവരാണ് ഈ കലാകാരന്മാരിൽ ചിലർ അവരുടെ സൃഷ്ടികൾക്ക് സമ്മാനങ്ങൾ ഒരുപാട് നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ ആധുനിക കല അതിൻ്റെ പരമ്പരാഗത കലയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആധുനിക കല എന്നു പറയുമ്പോൾ കലാപ്രസ്ഥാനങ്ങള സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി നന്നായി ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ത്യയ്ക്ക് വളരെ സമ്പന്നമായൊരു സാംസ്കാരിക പൈതൃകം തന്നെയുണ്ട് ഇന്ത്യൻ കല ഇന്ത്യയിൽ മാത്രമല്ല പ്രശസ്തമാണ് ലോകമെമ്പാടുമാണ് ഇത് എല്ലാവരും ഇതിനെപ്പറ്റി പറയുന്നത് നിരവധി ഇന്ത്യൻ കലാകാരന്മാർ വിവിധ രാജ്യങ്ങളിൽ അവരുടെ കലകൾ എല്ലാവരുടേയും മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കലയുടെ സാംസ്കാരിക പൈതൃകം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവ ഇന്ത്യയുടെ ചരിത്രം സംസ്കാരം പാരമ്പര്യം എന്നിവയിൽ പ്രതിഫലിച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ കല എന്നു പറയുന്നത് ലോകമെമ്പാടും എല്ലാവർക്കും അറിയാവുന്ന ഒരു കലാസൃഷ്ടി തന്നെയാണ് കലകളായാലും കലാരൂപങ്ങളായാലും ഇന്ത്യയിലെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വളരെ മികച്ചതായി നിലകൊള്ളുന്നു ഇപ്പോഴും